ഒരു സ്ത്രീ വിവാഹിതയായിക്കഴിഞ്ഞാൽ ആ സ്ത്രീ ഗർഭിണിയായതിനു ശേഷം അവർക്കുണ്ടാകുന്ന കു കുട്ടികളുടെ സുരക്ഷിതത്വത്തിനു വേണ്ടി മറ്റു രോഗങ്ങളൊക്കെ വരാതിരിക്കുന്നതിനു വേണ്ടി കരുതലോടു കൂടി വേണ്ട ശുശ്രൂഷകൾ ആരംഭ കാലം മുതലേ വീട്ടുകാർ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് മാണ് ഇപ്പോൾ സാധാരണഗതിയിൽ എല്ലാ വീടുകളും എല്ലാ ഭവനങ്ങളും അത്യാവശ്യം നല്ല രീതിയിൽ താമസിക്കുന്ന ആൾക്കാരാണ് ഒരു കുട്ടി ജനിക്കുന്നതിനു മുമ്പുതന്നെ അതായത് പ്രസവ സമയമാകുന്ന കാലം മുതൽ വേണ്ടത്ര പരിരക്ഷ നൽകുന്ന ഒരു സമയം കൂടിയാണ് ഒരു കുട്ടി ഒരു ഹോസ്പിറ്റലിൽ ജനിച്ചാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഡിസ്ചാർജ്ജായി സൊഫവന സ്വന്തം ഭവനത്തിലേക്കു വരുമ്പോൾ അവർക്കു പ്രത്യേകം വിശ്രമിക്കുവാൻ ആ കുഞ്ഞിൻ്റെ ആരോഗ്യത്തിൻ്റെ രക്ഷയ്ക്കു വേണ്ടി പരിരക്ഷയ്ക്കു വേണ്ടി അവർക്ക് വേൺ വേണ്ടുന്ന ആവശ്യങ്ങൾ സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുക്കുന്നത് ഒരു സാധാരണ എല്ലാ കുടുംബത്തിലും കാണാവുന്നതാണ് ഒരു കുട്ടി ജനിച്ചുകഴിഞ്ഞാൽ അവർക്ക് പ്രത്യേകമായ ഒരു മുറി പ്രത്യേകമായ രീതിയിൽ എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി മറ്റ് അണുബാധകളൊന്നും ഇല്ലാതെ ആ കുട്ടിയെ രക്ഷിക്കുന്നതിനു വേണ്ടി വളരെ വൃത്തിയുള്ള വസ്ത്രങ്ങൾ സമയാസമയങ്ങളിൽ മാറി മാറി ഉപയോഗിച്ച് വളർത്തുന്ന അല്ലെങ്കിൽ ആ കുട്ടിയെ പരിപാലിക്കുന്ന ഒരു രീതിയാണ് നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്നത് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അതിന് ആവശ്യമായ അല്ലെങ്കിൽ ആദ്യകാലങ്ങളിൽ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ വളരെ വൃത്തിയുള്ളതും അണുബാധകളില്ലായെന്ന് സ്ഥിരീകരിച്ചതിനു ശേഷം മാത്രമേ കൊച്ചു കുട്ടികൾക്ക് വസ്ത്രങ്ങൾ ഉപയോഗിക്കാറ് അങ്ങനെ ആവശ്യമായ എല്ലാ രീതിയിൽ ഒരു കുട്ടിയെ പരിരക്ഷിക്കുന്നത് ആ മാതാപിതാക്കളുടെ കർത്തവ്യമാണ് അവർ അതുപോലെ തന്നെ കുട്ടികൾക്ക് കൊടുക്കുന്ന ആഹാരം പ ഫീഡിങ് ബോട്ടിൽ തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ ഫീഡിങ് ബോട്ടിൽ ദിവസവും വൃത്തിയായി കഴുകി ചൂടുവെള്ളത്തിൽ കഴുകി വളരെ വൃത്തിയായി സൂഷ്മതയോടുകൂടി മാത്രമേ സാധാരണ എല്ലാ കുടുംബങ്ങളിലും കൊച്ചു കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കൊടുക്കുന്ന രീതി വളരെ ശ്രദ്ധയോടു കൂടിയായിരിക്കും അതുപോലെതന്നെ ഞാൻ അവരുടെ വസ്ത്രധാരണത്തെക്കുറിച്ചു പറഞ്ഞു അവർക്കുപയോഗിക്കുന്ന തുണികളെക്കുറിച്ചു പറഞ്ഞു പിന്നെ കൊച്ചു കുട്ടികൾക്കുപയോഗിക്കുന്ന പൗഡറുകൾ ക്രീമുകൾ അതെല്ലാം ഒരു ഗൈനക്കോളജിക് ഡിപ്പാർട്ട്മെൻ്റിൻ്റെ ലെ ഡിപ്പാർട്ട്മെൻ്റിലെ ഡോക്ടർമാരുടെ ഉപദേശം സ്വീകരിച്ചു മാത്രമേ ചെയ്യാറുള്ളൂ കൊടുക്കാറുള്ളൂ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന രീതിയിൽ അവരുടെ അഭിപ്രായം അനുസരിച്ച് കൊച്ചു കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നു ആ രീതിയിൽ പരിപാലിച്ചെങ്കിൽ മാത്രമേ കുട്ടികൾക്ക് രോഗങ്ങൾ വരാതിരിക്കാനും അവരുടെ ആരോഗ്യത്തിൻ്റെ പരിരക്ഷയ്ക്കും വളരെ പ്രയോജനപ്പെട്ട ഒന്നാണ്